നമുക്ക് ബിസ്സിനസ്സെന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രകൃതി പരമായി പ്ര പ്രകടി പ്രകൃതിപരമായ വിഭവങ്ങളുണ്ടെന്ന് വിചാരിച്ചാൽ ഉണ്ട് ആ നമ്മള് നമ്മുടെ ഓരോ സീസണുകളിലും ഓരോരോ കായ്കള് ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് വേനല്ക്കാലത്താണെങ്കിൽ മാമ്പഴം തണ്ണിമത്തൻ അങ്ങനെയുള്ളതെല്ലാം അപ്പോൾ ഓരോ സീസണനുസരിച്ച് നമ്മള് ഒരു ബിസ്സിനെസ്സ് നടത്തുക മാമ്പഴക്കാലത്താവട്ടെ അത്യാവശ്യം നല്ല മാമ്പഴം മാമ്പഴക്കാലത്തല്ല സോറി സീസൺ അപ്പറെ നമ്മള് നല്ലൊരു ബിസ്സിനെസ്സ് നടത്താം മാമ്പഴക്കാല മാമ്പഴക്കാലത്തണെങ്കിൽ മിക്കവിടേം മാമ്പഴം എടുക്കും ആ സമയത്ത് നമ്മള് വേറെ വല്ല ഫ്രൂട്ട്സെല്ലാം അത്യാവശ്യം നല്ല ലെവൽ നല്ല വൃത്തിക്ക് നല്ല ഫ്രൂട്ട്സ്കളെല്ലാം വിൽക്കാം അതൊരു നല്ലൊരു അങ്ങനെ പ്രകൃതിവിഭവ പ്രകൃതിപരമായ വിഭവങ്ങളുടെ ഫ്രൂട്ട്സ് അധികം